ഗ്രാമത്തിൽ വയനാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സമന്ദിരി വനവിഭവങ്ങളുടെ ഒരു ചെറിയൊരു കുടിൽ വ്യവസായരീതിയിലുള്ള വ്യവസായങ്ങളാണ് പ്രധാനമായിട്ട് വയനാട് ജില്ലകളിൽ കാണപ്പെടുന്നത് അതായത് മറ്റൊരു രീതിയിലുള്ള ഒരു വ്യവസായികമായിട്ട് ഇതിലൊരു ഫാക്ടറികൾക്കോ അത്തരത്തിലുള്ളൊരു സമൂഹങ്ങളോ നിലവിൽ വയനാട്ടിൽ വലിയ രീതികളിൽ ഒന്നും വന്നിട്ടില്ല ബഹുരാഷ്ട്ര കമ്പനികളുടേതായിട്ടുള്ള പ്ലാന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമത്തിൽ